നമ്മുടെ പ്രദേശത്തെ കലാപരമായ പൈതൃകം പ്രദർശിപ്പിക്കുന്ന ആർട്ട് ഗാലറി എന്ന് പറയുമ്പോൾ അത് തൃശ്ശൂര് തന്നെയാണ് ലളിതകല സാഹിത്യ അക്കാദമി ആയിട്ടും അതുപോലെ തന്നെ തൃശ്ശൂര് സൂവില് പ്രവർത്തിക്കുന്ന ആർട്ട് ഗാലറി ഒക്കെ ആയിട്ട് എന്താ പറയുക അവിടെയാണ് നമ്മുടെ അവിടെ കൂടുതലായിട്ടും കലാപരമായ പൈതൃകം പ്രദർശിപ്പിക്കുന്നത് അവിടെ കെ സി എസ് പണിക്കർ അത്ര തരത്തിലുള്ള പ്രതിഭകളുടെ പല തരത്തിലുള്ള ചിത്രങ്ങളും അവര് വരച്ചിട്ടുള്ള പല തരം ചിത്രങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരത്തിലുപയോഗിച്ചിരുന്ന പല തരത്തിലുള്ള കരകൗശല വസ്തുക്കള് വിളക്ക്കള് പോലെയുള്ള പഴയ കാലത്തെ ചിത്രങ്ങള് പഴയ കാലത്തെ ആർട്ട്കള് അതായത് ഇപ്പം എന്താ പറയുക ശിൽപ്പങ്ങളായിക്കോട്ടേ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തൃശ്ശൂരുള്ള ഈ ആർട്ട് ഗാലറീല് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവരുപയോഗിച്ചിരുന്ന പലതരം വസ്തുക്കള് അതെല്ലാം ആ മ്യൂസിയത്തില് പോയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എന്താ പറയുക മൃഗങ്ങളുടെ തോലുകൊണ്ടുപയോഗിച്ചിട്ടുള്ള സ്റ്റഫ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കാ മ്യൂസിയത്തിനുള്ളില് കാണാൻ സാധിക്കും അപ്പം അവിടുത്തെ പ്രദർശന സമയമെന്ന് പറയുന്നത് കാലത്ത് പത്ത് മണി തൊട്ടിട്ട് വൈകുന്നേരം ആറ് മണി വരെയാണവിടുത്തെ സന്ദർശന സമയം പ്രദർശങ്ങങ്ങള് ഈ പറഞ്ഞ പോലെ തന്നെ സൂ ഉണ്ട് അതിനടുത്തായിട്ട് ഇങ്ങനെ തന്നെ ബിൽഡ് തന്നെ പ്രവർത്തിക്കുന്ന മ്യൂസിയമാണ് മ്യൂസിയത്തില് ഈ പറഞ്ഞത് പോലെ പല തരത്തിലുള്ള കലാരൂപങ്ങളായിട്ടും കലാരൂപങ്ങള് തന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതായത് ആദ്യ കാലത്ത് കഥകളിലുണ്ടായിരുന്ന കാര്യങ്ങളെന്തൊക്കെയാണോ അത്തരത്തിലുള്ള കാര്യങ്ങള് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ കേരളം കലാമണ്ഡലമെന്ന് പറയുന്നൊരു വലിയൊരു സംഗീതം പ്രവർത്തിക്കുന്ന നമ്മുടെ തൃശ്ശൂരാണ് അപ്പോൾ കേരള കലാമണ്ഡലത്ത് എന്ന് വച്ച് കഴിഞ്ഞാൽ കലക്കാണ് കൂടുതൽ പ്ര പ്രാതിനിധ്യം നൽകിയിട്ട് ഉള്ളത് അവടേയും ഈ പറഞ്ഞത് പോലെ തന്നെ കുറെ തരത്തിലുള്ള ആർട്ട്കള് പ്രദർശിപ്പിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും